ഹലോ ആമസോൺ ഷോപ്പിങ്ങ് ആണോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഐറ്റംസ് അതായത് ബിഗ് ബിൽ ബിഗ് ബില്യൺ സെയിൽസ് വരുന്നുണ്ടല്ലോ അപ്പോൾ അപ്പോഴത്തേക്കും വേണ്ടി കുറേ ഐറ്റംസ് കാർട്ടിൽ കാർട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് പിന്നെ കുറേയെണ്ണമൊന്നും അതായത് ഇത് മുഴുവനൊന്നും മേടിക്കാനുള്ളൊരു പിന്നേ ക്യാഷില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇനങ്ങൾ മാത്രമേ പിന്നെ ഷോപ്പ് ചെയ്യുന്നുള്ളൂ അപ്പോൾ കുറച്ചു മാത്രമേ ഷോപ്പ് ചെയ്യുന്നുള്ളൂ പിന്നെ ഞാൻ കുറേ എന്ന് വെച്ചിട്ടുണ്ടായെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വളരെ മോശം ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോഴെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യമെല്ലാം മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബില്യൺ സെയിൽസ് പറയണ നമുക്ക് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ഒരിതില് നമ്മളെല്ലാം മേടിക്കണമെന്നുള്ളൊര് മൈന്റിലായിരുന്നു എല്ലാം കാർട്ടിലാക്കി വച്ചത് അപ്പോൾ കുറേ ഞാൻ ഇത് കാർട്ടിലാക്കിയതിന് ശേഷമാണ് ഓരോന്നിന്റേയും ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അതായത് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പോൾ വലിയ റിവ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല റിവ്യൂ ഉള്ള ഒരു അഞ്ചാറ് സാധനം മാത്രമേ മേടിക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല അപ്പോൾ അതൊന്ന് കാർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ഓക്കെ